ഹലോ ആ ഹലോ

ആ ഓക്കെ സാർ പറഞ്ഞോളൂ എങ്ങനെയാണ് വീട് എത്ര സ്ക്വയർ ഫീറ്റാണ് എങ്ങനെയാണ് സാറ് പ്ലാൻ ചെയ്യുന്നത് ആ ആ ഓക്കെ ആ പ്ലോട്ട് നേരത്തേയിണ്ടല്ലേ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ അപ്പോൾ ആ ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ

നമ്മുടെ പഴയ ഇല്ലം പോലെയുള്ള ആ ഒരു ടൈപ്പിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലേ ആ നടുമുറ്റം വരുന്നത് ആ ഓക്കെ നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഉണ്ട് അത് എത്ര എങ്ങനെയാണ് നിങ്ങളുടെ റൂമും കാര്യങ്ങളും കിച്ചൻ എങ്ങനെയൊക്കെയാണ് എത്ര സ്ക്വയർ ഫീറ്റ് വേണം എന്നാണ് നിങ്ങളുദ്ദേശിക്കുന്നത് മൂന്ന് ബെഡ്റൂമ് ആ ഓക്കെ അതൊരു പത്ത് പന്ത്രണ്ടിൻ്റ ബെഡ്റൂമാണെന്ന് ഉണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പം ഉണ്ടാവും ആ ആ

ആ ആ ഓക്കെ ആ മനസ്സിലായി മനസ്സിലായി ആ പൂമുഖം വേണം ആ ആ

ആ ഉവ്വ് തീർച്ചയായിട്ടും ആ ആ അതെ അതെ ആ ആ ആ ആ പൂജാ റൂമെന്തെങ്കിലും സെറ്റ് ചെയ്യുന്നുണ്ടോ ആ ആ ഓക്കെ അപ്പം നമ്മുടെ ബാത്ത്റൂമ് അറ്റാച്ച്ഡ് ആയിട്ടാണോ കൊടുക്കേണ്ടത് അതോ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണോ ആ ഓക്കെ

ആ ജസ്റ്റ് ഡൈനിംഗ് നല്ല രൂപത്തിൽ ആ ആ ആ ആ ആ ഓക്കെ ആ നമുക്ക് ഇതെന്തായാലും സാറെ നമുക്കിതൊരൂ എനിക്ക് തോന്നുന്നൊരു തൗസൻ്റ് റ്റു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിൽ ഏകദേശം ആ ഒരിത് വരേണ്ടതാണ് അപ്പോൾ അങ്ങനെയൊരു എസ്റ്റിമേറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ റേറ്റ് ഒരൂ തൗസൻ റ്റു ഹൺഡ്രഡാണ് നമ്മുടെ സ്ക്വയർ ഫീറ്റിന് നമ്മൾ മേടിക്കുന്നത് ആ അപ്പോൾ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് നമുക്കൊന്നിരുന്ന് കണ്ട് സംസാരിക്കാം ബാക്കി ഡീറ്റെയ്ലും കാര്യങ്ങളൊക്കെയായിട്ട് പിന്നെ ആ ആ തീർച്ചയായിട്ടും ആ ഓക്കെ പിന്നെ പെയിൻ്റിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് സംസാരിക്കണം കാരണം ഇൻ്റീരിയറും എക്സ്റ്റീരിയറും നമുക്ക് എന്താണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് ആ ആ ഒരു കാര്യത്തിൽ കൺഫമേഷനാക്കിയിട്ട് നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം സാറിനെന്തായാലും ഇന്ന് ഓഫീസിലോട്ട് വരൂ ആ ഉണ്ട് തീർച്ചയായിട്ടും നമ്മളെ കയ്യിൽ ഒരു ബ്രോഷറുണ്ട് സാർ ആ ആ ഞാനെന്തായാലും ഫോർവേഡ് ചെയ്യാം ആ ശരി ഓക്കെ താങ്ക് യു